ഹാ ഇന്ത്യയിൽ ഔദ്യോഗിക ഭാഷയായിട്ട് നമ്മൾ പറയുകയെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ഹിന്ദി ആയിട്ടാണ് പറയുക പിന്നെ അതിന് അപ്പുറം ആളുകൾ ഓരോ സ്റ്റേറ്റിനും ഓരോ ലാംഗ്വേജസെന്ന നിലയിൽ നമ്മുടെ ഇന്ത്യയിൽ കണ്ടമാനം ഉണ്ട് ഇപ്പം കേരളത്തിൽ സംസാരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ സംസാരിക്കണേ മലയാളത്തിലായിരിക്കും തമിഴ്നാട്ടിൽ ആണെങ്കിൽ ശേ തമിഴ് ഭാഷയിൽ പിന്നെ കന്നട ഗുജറാത്തി അങ്ങനെ ഓരോ ലോട്ട് ഓഫ് ലാംഗ്വേജസ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ട് കാരണം ഓരോ കൾച്ചറും ഓരോ വ്യത്യസ്തമായ ആൾക്കാരും ആണ് ഇന്ത്യയിൽ കൂടുതലുള്ളത് ഇന്ത്യയിലത്തെ ലാംഗ്വേജുകൾ പറയണം എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഇന്ത്യൻ ലാംഗ്വേജെന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാരും പ്രൊബബ്ലി യൂസ് ചെയ്യുന്നത് ഹിന്ദി ലാംഗ്വേജാണ് പക്ഷേ സൗ സൗത്ത് ഇന്ത്യൻ സൈഡിൽ ഓരോ സ്റ്റേറ്റിനും മിക്കതും ഓരോ ഭാഷയാണ് ഇപ്പം തമിഴ്നാട് കേരള കർണാടക തെലുങ്ക് അങ്ങനെയുള്ള ഭാഷകളാണ് കൂടുതലും വരണേ പക്ഷേ കോമൺ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദി എന്നു തന്നെയാണ് പറയുക പിന്നെ ഈ ഭാഷകളോടുള്ള അഭിപ്രായം എന്ന് പറയുമ്പം ഭാഷകളൊക്കെ എല്ലാ ഭാഷകളും നല്ലതാണ് പക്ഷേ നമ്മളൊരു വേറൊരു സംസ്ഥാനത്തേക്ക് കടക്കുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാകുന്നത് അപ്പോൾ ഒരു സംസ്ഥാനത്ത് തന്നെ നിന്ന് ആ ഭാഷയെ സംസാരിച്ച് മറ്റൊരു സംസ്ഥാനം കടക്കുമ്പോൾ വേറൊരു ഭാഷയാകുമ്പോൾ അങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾ കടക്കുമ്പോൾ ഓരോ ഭാഷയാകുമ്പോൾ പെട്ടെന്നത് ആ ഭാഷ പഠിക്കാനും സാധിക്കില്ല ആ ഭാഷ സംസാരിക്കാനും സാധിക്കില്ല അവരെന്താ പറയുന്നതെന്നും മനസ്സിലാകില്ല അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറേ ഈ ഭാഷകളോട് ഉണ്ട് അതിന് പകരം ഇന്ത്യ മൊത്തത്തിൽ ഒരു ഒരു ലാംഗ്വേജ് മാത്രമാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ മാത്രം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉപയോഗിച്ചാൽ മതി അല്ലാത്ത പക്ഷം ഇന്ത്യയിൽ നമ്മൾ ഏത് സ്ഥലത്തേക്ക് സംസ്ഥാനത്തേക്ക് നീങ്ങുമ്പോൾ ഒറ്റ ഭാഷയാണെങ്കിൽ ഏറ്റവും നല്ലതായേനെ പക്ഷേ ഇവിടെ ഇപ്പോൾ ഓരോ സ്ഥലങ്ങൾ ഓരോ പ്രദേശങ്ങൾ ഓരോ രീതിയിലും കുറേ സംസ്കാരങ്ങൾക്ക് അനുസരിച്ചുള്ള ഭാഷകളാണ് ഇവിടെയുള്ളത് കണ്ടമാനം ഭാഷകൾ ഇ ഇന്ത്യയിൽ തന്നെ ഉണ്ട് അപ്പം ഇതാണ് എന്നോ എനിക്ക് ഈ രാജ്യത്തെ ഭാഷ വൈവിധ്യത്തെ കുറിച്ച് പറയാനുള്ള അഭിപ്രായം